ഇപ്പം ഞങ്ങടിവിടെ എൻ്റെ വീടിൻ്റടുത്തു എന്നു പറയുന്നത് മലയാറ്റൂരാണ് മലയാറ്റൂര് ഇല്ലിത്തോടൻ ഭാഗത്ത് ടൂറിസ്റ്റ് മേഖലയാണ് അവിടെ ജാതി മതം അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുണ്ട് അതിനൊന്നും കുഴപ്പമായിട്ടിതുവരെയും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നവിടെ ആൾക്കാർ വരാറുണ്ട് ഇന്ന മതത്തിനു കയറാൻ പാടില്ല ഇന്ന മതത്തിനു കയറാൻ പാടുണ്ടെന്നു പറഞ്ഞിട്ട് അവിടെ ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നം ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഉണ്ടായിട്ടില്ല പിന്നതുപോലെ തന്നെ ഞാ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതം ജാതി മതം അങ്ങനെയൊന്നും വരാനെ പാടില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മതത്തെക്കുറിച്ചിട്ട് സംസാരം നടത്തുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യാ അപ്പം ജാതി മതപ്പ നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല നമുക്ക് തലമുറകളായിട്ടുള്ള കാര്യമാണ് ജാതി മതമെന്നൊക്കെ പറയണത് അപ്പം ആ മതത്തെ ഇങ്ങനെ ഇല്ലാതാക്കി കൊണ്ടിരിക്കണത് നമ്മൾ തന്നെയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലെനിക്ക് ഇങ്ങനെ ജാതിയും മതത്തെക്കുറിച്ചിട്ടൊന്നും വലിയ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കണത് വലിയ താത്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് പിന്നെ ഇപ്പം പറയണത് മലയാറ്റൂർ ഇല്ലിത്തോട് പിന്നതുപോലെ തന്നെ ആനക്കോട്ട പിന്നെ ഗുരുവായൂർ ആ ഭാഗത്ത് ഇപ്പം ഗുരുവായൂരൊക്കെ ആണെങ്കിൽ തന്നെ ടൂറിസം മേഖലയാണെങ്കിൽ പോലും അമ്പലത്തിലേക്കങ്ങനെ മതം നോക്കിയിട്ടൊക്കെയാണ് കയറ്റണമെങ്കിലും അതുമല്ല ജാതി നോക്കിയിട്ടാ കയറ്റണമെങ്കിൽ പോലും ബാക്കിയുള്ളിടത്തൊക്കെ മതവും ജാതിയും ഒന്നും നോക്കത്തില്ല പിന്നതുപോലെ തന്നെ ഈ താണജാതിക്കാർ മതം അങ്ങനെയൊക്കിപ്പം ഹിന്ദുക്കൾ തന്നെ ഇഷ്ടം പോലെ മതങ്ങളുണ്ട് മുസ്ലിംസിലാണെങ്കിലും ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ജാതിയും മതവും ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരേർപ്പാടാണെന്നേ ഞാൻ പറയു